എൻ്റെ പ്രിയപ്പെട്ട നർത്തകരെന്ന് പറയുന്നത് ശോഭനയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ദിവ്യ ഉണ്ണി പിന്നെ നവ്യ നായർ ഇവരെയൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ക്ലാസിക്കൽ നൃത്തകർ ആയത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നൃത്തകരാണ് ഇവരെല്ലാവരും പിന്നീട് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ റംസാനെ ഇഷ്ടമാണ് ആൾടെ ഓരോ ചലനങ്ങളും അതായത് സിനിമാറ്റിക് ഡാൻസ് നൃത്തം അതെനിക്ക് ഭയങ്കരിഷ്ടമാണ് അങ്ങനെ ഒരുപാട് റീൽസിൽ അത്യാവശ്യം ഉള്ള എല്ലാവരും എനിക്ക് ഇഷ്ടമാണ് കാരണം നൃത്തം പൊതുവെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കലയായത് കൊണ്ട് തന്നെ അത് ചെയ്യുന്ന ഒട്ടുമിക്ക ആളെയും എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഞാൻ കൂടുതൽ ക്ലാസിക്കൽ നൃത്തം ആയതു കൊണ്ട് തന്നെ അത് അതിനോട് സംബന്ധിച്ചിട്ടുള്ള ആൾക്കാരെയാണ് കുറച്ച് കൂടി കൂടുതൽ ഇഷ്ടം എന്ന് കരുതി ഈ സിനിമാറ്റിക് നൃത്തം ചെയ്യുന്നവരെ ഇഷ്ടമല്ലാന്നല്ല പക്ഷേ കുറച്ച് കൂടി കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ദിവ്യ ഉണ്ണി ശോഭന മഞ്ജു വാര്യർ ഇങ്ങനെയുള്ള നൃത്തകരെയാണ്